എനിക്ക് പടങ്ങൾ വരയ്ക്കാൻ വളരെയധികം ഇഷ്ടമാണ് ഞാൻ സ്വന്തമായിട്ടൊന്നും വർക്ക് ചെയ്യാറില്ല തന്നെ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് ആ പടങ്ങൾ ഞാൻ വരയ്ക്കാറുണ്ട് ഞാൻ മെയിനായിട്ട് വരയ്ക്കുന്നത് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പിന്നെ ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് മിക്കി മൗസ് പോലുള്ള ആ ക്യാരക്ടേഴ്സൊക്കെയാണ് ഞാൻ കൂടുതൽ വരയ്ക്കുന്നത് ഈ വാട്ടർ കളറുപയോഗിച്ചാണ് ഞാൻ കൂടുതലായിട്ടും സ്വിച്ച് ബോർഡ് പെയിൻ്റിങ്ങുകളാണ് ചെയ്തിട്ടുള്ളത് തന്നെയല്ല എൻ്റെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ ഞാൻ കളർ വച്ചിട്ട് പടങ്ങൾ വരയ്ക്കാറുണ്ട് എൻ്റെ പടങ്ങളെന്നു വച്ചാൽ വീട്ടിലെല്ലാവരും എന്നെ ഇതിന് പ്രോത്സാഹിപ്പിക്കാറുണ്ട് പടം വരയ്ക്കും ഒക്കെ അമ്മയും അച്ഛനുമൊക്കെയാണ് എനിക്ക് കൂടുതലും പ്രോത്സാഹനം തന്നിട്ടുള്ളത് പിന്നെ അടുത്ത് പടം കാണുന്ന ആൾക്കാർ പറയും എനിക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ട് എവിടെയെങ്കിലും പോയി പഠിക്കണമെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതുവരെ ഞാനങ്ങനെ പുറത്തൊന്നും പോയി പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ ആൾക്കാർ യൂട്യൂബ് പോലെയൊക്കെ ആൾക്കാർ വരയ്ക്കുന്ന പടങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെ നോക്കി ഞാൻ കുറച്ച് അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് വരച്ച് വരച്ച് ഞാൻ പഠിക്കാറുണ്ട്